പ്രിയമുള്ള സുഹൃത്തുക്കളെ മഴക്കാലം പിന്നെ റോഡിലുള്ള റോഡില് കൂടെയുള്ള കുഴികൾ തോടുകളിലൂടെ വരുന്ന മണലുകൾ ഇതൊക്കെയാണേറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്നത് മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളവും കുണ്ടുകളും കുണ്ടുകളിൽ ചെളികളും ഉണ്ടാവും അതില് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ പിന്നെ നമ്മുടെ തോടുകളിൽ അരികിൽ തോടുകളുടെ അരികിലൂടെ റോഡുകളിൽ മണലുകൾ പൊങ്ങി അതിനകത്ത് വീഴും അതിലൂടെ വണ്ടി ഓടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ നടുകൾ ഫുള്ള് വേദനിക്കും പൊടികൾ അങ്ങനത്തെ ഉള്ള എല്ലാ പൊടികളും പോ വണ്ടികളുടെ പുകകളും ഇതൊക്കെ കണ്ണിലും ഒക്കെ അടിച്ച് നമ്മളുടെ തല വേദനിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട് പിന്നെ വെയില് വെയിലാണ് ഏറ്റവും വിഷയം നേരെ സൺസെറ്റ് നേരെ വരുമ്പോൾ കണ്ണിലേക്ക് വെളിച്ചമടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാകാൻ വളരെയധികം സാധ്യതകള് കൂടുതലാണ് വെയിലാണ് തലവേദനയ്ക്ക് പരമാവധി കാരണം പൊടിയും പുകയുമാണ് ഇതൊക്കെയാണെറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത്